ഉം ഹലോ വെജിറ്റബിൾ ഷോപ്പിൻ്റെ അവരല്ലേ അപ്പോൾ എനിക്ക് എൻ്റെ ആ എനിക്ക് കുറച്ചു എന്താണ് പറയുക ഫങ്ക്ഷൻ ഉണ്ട് വീട്ടിൽ അപ്പോൾ കുറച്ചു പച്ചക്കറി വേണമായിരുന്നു അപ്പോൾ ആ കല്യാണം അല്ല എൻ്റെ വീട്ടിലൊരു ഫങ്ക്ഷനുണ്ട് തൊട്ടടുത്തുള്ളയാണ് അപ്പോൾ അതിന് അതിന് വലിയ ഇതൊന്നുമില്ല ഒരു പത്തിരുന്നൂർ ആൾക്കാരുടെ ഫങ്ക്ഷനാണ് അപ്പോൾ കുറച്ച് പച്ചക്കറി വേണം അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ആ അപ്പോൾ നിങ്ങളുടെയടുത്ത് കുറച്ച് ഫ്രഷ് പച്ചക്കറിയാണ് തരുന്നതെന്നു പറഞ്ഞു അതെ അല്ലേ അപ്പോൾ നമുക്ക് കുറച്ചു ഫ്രഷ് പച്ചക്കറി അതെ അല്ലേ ഓക്കെ എനിക്കൊരു ആക്ച്വലി എനിക്ക് വേണ്ടത് ഈ നമ്മൾ തക്കാളി കൊണ്ടു കുറച്ചു സ്പെഷ്യൽ ടൊമാറ്റോ നമ്മൾ ഉണ്ടാക്കണമല്ലോ അപ്പോൾ കുറച്ചു ഫ്രഷ് തക്കാളീസ് വേണമതിന് അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഇത് നോർമ്മലി എല്ലായിടത്തും ഉണ്ടാകുന്ന സാധനമാണ് സാധനമാണ് അപ്പോൾ ഈ ടൊമാറ്റോ ഓംളേറ്റെ ടൊമാറ്റോ കുറച്ചു ഫ്രഷ് വേണം നോർമ്മലി പിന്നെ നമ്മൾ സാധാരണ എല്ലാവരും ഈ തക്കാളിയിൽ ഇത് ആവില്ല അതിൻ്റെ കറക്റ്റ് പെർഫെഷൻ കിട്ടില്ല ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല ഫ്രഷ് സാധനന്ന് അറിഞ്ഞത് കൊണ്ടാണ് നിങ്ങളെ വിളിച്ചത് അപ്പോൾ എനിക്കൊരു ആ ഒരു ഇരുപതു കിലോയാണ് വേണ്ടത് എനിക്ക് വില പ്രശ്നമല്ല പക്ഷെ എനിക്ക് സാധനം സെറ്റ് ആയിരിക്കണം വില നിങ്ങൾ സാധനം അതെ റേറ്റ് നിങ്ങൾ പ്രേശ്നമാക്കേണ്ട റേറ്റ് നമ്മൾക്ക് പ്രശ്നമല്ല പക്ഷെ നമ്മൾക്ക് സാധനം ഫ്രഷായിരിക്കണം ജസ്റ്റ് ഇത് നിങ്ങൾ തമിഴ്നാട്ടിലാണ് നമ്മൾ എന്നോട് പറഞ്ഞു വച്ചത് ലോക്കലിലാണ് അവർ ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞത് എന്നോട് അത് അപ്പോൾ അങ്ങനത്തെ മതി ലോക്കലി കിട്ടുന്ന സാധനം മതി അത് തമിഴ്നാട്ടിൽ നമ്മൾക്ക് എല്ലായിടത്തും കിട്ടുന്നതല്ലേ തമിഴ്നാട്ടിൽ സാധാരണ കിട്ടുന്നത് ആക്കിയാൽ മതി ആ അങ്ങനത്തെയാണ് നമ്മൾക്ക് വേണ്ടത് അപ്പോൾ എന്നാൽ അത് നിങ്ങളടുത്തുണ്ടെങ്കിൽ നമ്മൾക്ക് അതെ അല്ലേ എനിക്ക് ഒരു പത്തു ദിവസം കഴിഞ്ഞിട്ട് അത് അടുത്ത ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ വീട്ടിൽ ഫങ്ക്ഷൻ അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി ഒരു ഇരുപത് കിലോ തക്കാളി അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ നാളെ നിങ്ങളുടെ ഷോപ്പിലേക്ക് വരാം നിങ്ങളെ ഷോപ്പെ എനിക്ക് അറിയാം അപ്പോൾ നമുക്ക് ബാക്കി ഏമൗണ്ടിൻ്റെ കാര്യം സംസാരിക്കാം ആ ശരി ആ ശരി ശരി ശരി ശരി ശരി